ഇപ്പോൾ സാങ്കേതികവിദ്യയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പുരോഗതിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ക്ലാസ് റൂമുകൾ തന്നെ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പുല്ല് മേഞ്ഞ ക്ലാസ് റൂമുകളിലും ഓടിട്ട ക്ര ക്ലാസ് റൂമുകളിലും ഒക്കെയാണ് ഇരുന്നു കൊണ്ടിരുന്നത് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഹൈ ടെക്ക് ക്ലാസ് റൂമും കാര്യങ്ങളെക്കെയായിട്ടുണ്ട് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും കമ്പ്യൂട്ടർ ലാപ് ടോപ്പ് ഇതൊക്കെ നല്ല രീതിയിൽ വന്നിട്ടണ്ടായിരുന്നു പണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലാബ് അതിൻ്റെ ഉള്ളിൽ ഒന്നോ രണ്ടോ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കാരണമെന്താണെന്ന് വെച്ചാൽ അതിൽ നമുക്ക് നമുക്ക് ഭയങ്കര കാര്യമായിരിക്കും ആ കമ്പ്യൂട്ടർ ഒന്ന് തൊട്ടാൽ അത് തൊടാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നൊക്കെ കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറൊക്കെ അന്ന് നമ്മൾ സ്കൂളുകളിൽ അല്ലാണ്ട് പുറമെ അങ്ങനെ നമ്മൾ ക പോകുകയാണെങ്കിലൊക്കെ നല്ല രീതിയിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ വേണ്ടി വരുമായിരുന്നു അപ്പോൾ കമ്പ്യൂട്ടറൊക്കെ നമുക്കൊന്ന് തൊടാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ ഇപ്പം നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് അപ്പം നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഹൈ ടെക്ക് ക്ലാസുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം സാങ്കേതികവിദ്യ നമ്മളെ നല്ല രീതിയിൽ ഇപ്പം നമുക്ക് സാമ്പത്തികമായിട്ടും നല്ല രീതിയിൽ വിദ്യാഭ്യാസം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാങ്കേതികവിദ്യ സഹായിച്ചിട്ടുണ്ട്